ഒരുപാട് രാഷ്ട്രീയപ്രവർത്തകരിവിടെ തന്നെ ഉണ്ട് അവർ അവരിൽ ചില ആൾക്കാർ മാത്രമാണ് ഈ നാടിന് വേണ്ടിയിട്ടും ഈ സ് ജില്ലക്ക് വേണ്ടിയിട്ടും ഉപകാരങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒട്ടു മിക്ക ആളുകളും അവരവർക്ക് വേണ്ടിയിട്ടുള്ള പണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് എല്ലാവരും ഇപ്പം ഒരു റോഡ് ഇല്ലയെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ഒരുപാട് തവണ ഇങ്ങനെ അവരുടെ ബേക്കിൽ നടന്ന് ഒരു കുടിവെള്ളം ഇല്ലാത്ത പ്രശ്നത്തിന് തന്നെ അവരുടെ ബേക്കിൽ നടന്ന് കൈയും കാലും പിടിച്ച് കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് കൈക്കൂലി ഒക്കെ കൊടുത്താൽ മാത്രമേ അവർ എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്തു തരികയുള്ളൂ ഇല്ലാതെ അവ് അവരായിട്ട് നമുക്കങ്ങനെ ചെയ്ത് തരുന്നില്ല അങ്ങനെ ചെയ്തു തരുന്നവരും ഉണ്ട് ചില ആൾക്കാർ അതിൽ നല്ലവരുമുണ്ട് അവർ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമുക്ക് വേണ്ടി നമുക്ക് ഇന്ന കാര്യങ്ങളില്ല കുടിവെള്ളം ഇല്ലാ റോഡ് ഇല്ലാ എന്ന് ഒക്കെ പറയുമ്പോൾ അവർ തന്നെ എല്ലാം മുൻകൈ എടുത്തു നടത്തിത്തരുന്നവരും ഉണ്ട് ഇത് നടത്തിത്തരാത്തവർ തന്നെ കൂടുതൽ ആൾക്കാരും ഉണ്ട് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവരവർ അവ ആ ഉന്നത തലങ്ങളിലെത്തിച്ചത് അവർ ഉന്നതതലങ്ങളിൽ എത്തിച്ചത് ജനങ്ങളാണ് ആ ജനങ്ങളെ പോലും അവർ മറക്കുകയാണ് ചെയ്യുന്നത്